ഒരു നല്ല നർത്തകരിൽ നിന്നും ഒരു മികച്ചു നര്ത്തകിയെ വേറിട്ടു നിര്ത്തുന്നത് അവരുടെ വിനയവും അഹം നല്ല ഭാവനയുമാണ് തീര്ച്ചയായിട്ടും ഒരു നര്ത്തകിക്ക് എപ്പോഴും അവള്ക്ക് ഒരു വിനയത്തോടു കൂടി മറ്റുള്ളവരുടെ മുമ്പില് നില്ക്കുവാനായിട്ടു സാധിക്കുന്നുണ്ട് ഒരു നൃത്തം അഭ്യസിക്കുന്ന ഒരു അദ്ധ്യാപിക അല്ലെങ്കില് ഒരു വിദ്യാര്ത്ഥി ആ അദ്ധ്യാപികയുടെ മുമ്പില് എത്രത്തോളം വിനയത്തോടു കൂടിയാണ് നില്ക്കുന്നതെന്നു നമുക്ക് കാണാനായിട്ടു സാധിച്ചിട്ടുണ്ട് ഒരു നര്ത്തകിക്ക് അതില് നിന്നും അവളെ വേറിട്ടു നിര്ത്തുന്നത് അവളുടെ ആ ഒരു നൃത്തത്തിനോടുള്ള ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ആണെന്നാണ് എനിക്കു തോന്നുന്നത് നമ്മളെ നര്ത്തകിയെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെയേറെ ആദ്യം മുതലേ അതു ബാലപാഠം മുതല് പഠിക്കുന്നത് അവൾ തറയില് നിന്നും ഭൂമിദേവിയെ വന്ദിച്ചു കൊണ്ട് അവൾ അവിടെ ചിലങ്ക അണിയുമ്പോഴത്തേക്ക് അവള്ക്കു കിട്ടുന്നതു വേറൊരു രീതിയില് ഉള്ള ഒരു സരസ്വതി ദേവിയുടെ ഒരു അനുഗ്രഹവും അതോടൊപ്പം തന്നെ അവള്ക്ക് ആ വേദി നിൽക്കുവാനുള്ള ഒരാഗ്രഹം അവരുടെ ദേവിയില് നിന്നാണ് കിട്ടുന്നത് ആ സമയത്ത് അവളെ ഒരു നൃത്തത്തില് നിന്നും ഒരു നര്ത്തകിയെ നമുക്ക് വേറിട്ട് നിര്ത്താന് പറ്റുന്നത് ആ ഒരു സരസ്വതി ദേവിയുടെ ഭാവനയും വിനയവും ഒക്കെ തന്നെ സൗന്ദര്യം ഇവളുടെ സൗന്ദര്യം അവൾ ഒരുങ്ങി ഒരു നര്ത്തകി ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും അവരുടെ സൗന്ദര്യം തന്നെയാണ് അവരെ ഒരു നർത്തകിയിൽ നിന്നും തീർച്ചയായിട്ടും വേറിട്ട് നിർത്തുന്നത് സൗന്ദര്യത്തെ അവരുടെ മേക്കപ്പിട്ടും അവരുടെ വസ്ത്രധാരണം അവരുടെ മേക്കപ്പ് ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോഴാണ് ഒരു നർത്തകി ഒരു നർത്തകിയായി മാറുന്നത് തീർച്ചയായും അവർക്ക് ഈ നൃത്തത്തിലൂടെ അവർ അഭ്യസിക്കുന്നത് അവരുടെ കലാവാസനയാണ് ആ കലയിലേക്ക് ഏറ്റവും കൂടുതൽ അവരെ ആകർഷിക്കുന്നത് അവരുടെ അഭിനയം അതോടൊപ്പം തന്നെ അവരുടെ കണ്ണുകൾ അവരുടെ പിന്നെ നാസാഗ്രം എല്ലാം തന്നെ അവരുടെ മേക്കപ്പ് അതാണ് മെയിന് ആയിട്ടും അവരെ ആകര്ഷിക്കുന്നത് നമ്മള്ക്കൊക്കെ ഒരു നര്ത്തകിയെ കാണാന് സാധിക്കുന്നത് അവരുടെ മേക്കപ്പിലൂടെ തന്നെയാണ് അവരുടെ ഒരു ജീവിതത്തില് ഒരു നര്ത്തകിയില് നിന്നും ഒരു മികച്ച നര്ത്തകിയെ നമ്മൾ വേറിട്ട് നിര്ത്തുമ്പോള് ആ കാണാന് സാധിക്കുന്നത് അവരുടെ മേക്കപ്പ് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാന് സാധിക്കുന്നത്